ഞാൻ നല്ല പൂവുണ്ടാകാൻ വേണ്ടിയിട്ട് പിന്നെ ചാണക വെള്ളം ഒഴിക്കും പിന്നെ മുട്ടത്തോട് പൊട്ടിച്ചിടും പിന്നെ കാ ചായേൻ്റെ ചായപ്പൊടി ഇല്ലേ ചായപ്പൊടി ചായ വാറ്റി കളഞ്ഞേൻ്റെ ചായൻ്റെ മട്ടുണ്ടല്ലോ അതൊക്കെ ചെടിയിൽ കൊണ്ട് ഇടും പിന്നെ എന്ന് വച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ നേന്ത്രക്കായെൻ്റെ ഇത് പിന്നെ വളമാക്കും വെള്ളത്തിലിട്ടിട്ട് അത് ചീഞ്ഞ് അതിൻ്റെ പുഴുക്കൾ ഒക്കെ വരുമല്ലോ അത് അങ്ങനെ കൊണ്ടുപോയിട്ട് മണ്ണിൽ ഇടും പിന്നെ നമ്മൾ ഉള്ളിത്തോട് കൊണ്ടിടും അതൊക്കെ ചെയ്യും അപ്പോൾ നല്ല കളറിൽ നല്ല പൂക്കളുണ്ടാകും ന്ന പിന്നെ നമുക്ക് വേണമെങ്കിൽ പിന്നെ പൂവുണ്ടാകാൻ വേണ്ടിയിട്ട് ഹോർമോൺ അടിക്കാം ഞാൻ അങ്ങനെ ചെയ്യാറില്ല ഞാൻ നമ്മുടെ സാധാരണ ഇത് പിന്നെ ഒരു പ്രാവശ്യം പൂവുണ്ടായ റോസ ഒക്കെ ആണെങ്കിൽ ആ പിന്നെ കമ്പങ്ങ് വെട്ടിക്കൊടുക്കും അപ്പോൾ പുതിയ കമ്പ് പുതിയത് വന്നിട്ട് അതില് നല്ല മൊട്ടുണ്ടാകും അങ്ങനെ ഒക്കെയാണ് ചെയ്യാറ്